നമ്മുടെ സമുദായത്തിൽ പെട്ട ഒരു സംഘടനയെ രൂപീകരിച്ചിട്ടുണ്ട് അത് അവർ അതുവഴി പാവപ്പെട്ടവർക്കും കർഷകർക്കും ധാരാളം ധനസഹായങ്ങൾ നൽകുന്നുണ്ട് കൃഷി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർക്ക് കൃഷിയിൽ വലിയ നേട്ടം കൈവരിക്കാൻ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമുദായത്തിലൂടെ ഇടയിൽ നമ്മുടെ സംഘടനയിലൂടെയും അവർ ഒരു തുക പിരിച്ചെടുത്ത് അവർക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കർഷകർക്കും കർഷകർക്ക് ആയിരുന്നാലും ഏത് പാവ പാവപ്പെട്ട കർഷക കുടുംബങ്ങൾക്കും അതുപോലെയുള്ള മറ്റ് തൊഴിലുകൾക്കും ഞങ്ങൾ നമ്മുടെ സംഘടന വഴി ഒരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് അതുവഴി അവർക്ക് ലോണുകൾ കിട്ടുകയും അതൊരു അതൊരു ചെറിയ ഒരു വിഹിതം മാത്രം ലോൺ ആയിട്ട് അടക്കുകയും ചെയ്താൽ മാത്രം മതി അങ്ങനെയുള്ള ധാരാളം സഹായങ്ങൾ നമ്മുടെ സമുദായത്തിൽ നിന്നും പാവപ്പെട്ട കർഷകർക്കും മറ്റു ചെറുകിട തൊഴിലാളി വിഭാഗങ്ങൾക്കും നൽകുന്നുണ്ട്